വളർത്തുമൃഗങ്ങൾ വഴി ഇപ്പം വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് ഒക്കെയാണെങ്കിലും മാസം ഒരു നിശ്ചിത വരുമാനം നേടിയെടുക്കാൻ നമുക്ക് നിഷ്പ്രയാസം സാധിക്കും അതിപ്പം പശുവാണെങ്കിലും ആടാണെങ്കിലും ഒക്കെ കോഴി താറാവ് ആ ആ മൃഗങ്ങൾ വഴിയൊക്കെ നമുക്ക് ഒരു തുക വരുമാനം നേടാൻ പറ്റും അപ്പം പശുവിനെ ആണെങ്കിൽ വളർത്തിയാൽ പശുവിനെ വളർത്തിയാൽ പശുവിന്റെ പാൽ വിറ്റും ചാണകം വിറ്റും ഒക്കെ വീട്ടമ്മമാർക്ക് ഒരു തുക കിട്ടും അപ്പം പശുവിൻ്റെ പാൽ ഒക്കെയാണെങ്കിൽ വീടുകളിൽ വേണമെങ്കിൽ കൊടുക്കാം അല്ലെങ്കിൽ ഇപ്പം സൊസൈറ്റിയിലേക്ക് ഒക്കെ ആണെങ്കിൽ നമുക്ക് കൊണ്ടുപോയി സൊസൈറ്റിയിൽ കൊടുക്കാം പാൽ സൊസൈറ്റികളൊക്കെ എല്ലാ നാട്ടു പ്രദേശങ്ങളിലൊക്കെ ആണെങ്കിലും നമുക്കുണ്ട് അപ്പം ആ സൊസൈറ്റിയിൽ കൊണ്ട് കൊടുത്താൽ അവർ അതിന്റെ പൈസ കൃത്യമായിട്ട് നമ്മുടെ അക്കൗണ്ടിൽ ഇടും അങ്ങനെയൊക്കെയുണ്ട് അപ്പം പിന്നെ പശുവിന് അങ്ങനെ നമുക്ക് ഒരു പൈസ കിട്ടും അതുപോലെ തന്നെ ഇപ്പം ചാണകം ഒക്കെയാണെങ്കിലും ഈ കൃഷി സംബന്ധമായിട്ട് നമുക്ക് ആൾക്കാർക്ക് വേണ്ടി വരും അപ്പം അവർ ലോറിയിൽ വന്ന് അവരൊക്കെ അതൊക്കെ കൊണ്ട് പോയിക്കോളും അങ്ങനെയൊക്കെ നമുക്ക് അത് ചാണകത്തിൽ നിന്ന് നമുക്കൊരു വരുമാനം കിട്ടും ഇപ്പം ആടാണെങ്കിലും ആടാണെങ്കിലും നമുക്ക് പശുവിന്റെ അത്രയും വരുമാനം കിട്ടിയില്ലെങ്കിലും ആട് ആട്ടുവളർത്തലിലുടെയും നമുക്ക് ഒരു വരുമാനം കിട്ടും അതായത് ആടിൻ്റെ ഇപ്പം ആട്ടിൻ പാൽ വാങ്ങിക്കുന്നവരുണ്ട് അതു കുടിക്കുന്നവരുണ്ട് അപ്പോൾ അതൊക്കെ വളരെ വാങ്ങിക്കുന്നവർ ഉണ്ടല്ലോ അപ്പം നമുക്ക് അങ്ങനെയും കിട്ടുവല്ലോ അതുപോലെ തന്നെ ആടിൻ്റെ കുഞ്ഞുങ്ങളെ വിറ്റാണെങ്കിലും നമുക്ക് പൈസ കിട്ടും അങ്ങനെ ഇപ്പം അതുപോലെ തന്നെ കോഴി ആണെങ്കിൽ ഇപ്പം മുട്ട വിറ്റാൽ നമുക്ക് ഒരു വരുമാനം കിട്ടും താറാവ് ആണെങ്കിലും മുട്ടയിലൂടെ കിട്ടും പിന്നെ എന്തിനാണ് പശു പശു ആട് ഇതുപോലെയുള്ള വളർത്തുമൃഗങ്ങളെ കൂടാതെ ഇപ്പം പട്ടിയെ ആണെങ്കിൽ പോലും ഇന്ന് ഒരു വരുമാന മാർഗമായിരിക്കുവാണ് പല വീട്ടമ്മമാരുടെയും പട്ടി കുഞ്ഞുങ്ങളെ വിൽക്കുന്നതിലൂടെ അവർ മാസമൊരു നിശ്ചിത തുക കണ്ടെത്തുന്നുണ്ട് പല ബ്രീഡിലുള്ള പട്ടികളെ വളർത്തിയും അതുപോലെ തന്നെ ഇപ്പം ഒരു പട്ടി കുഞ്ഞ് അയ്യായിരത്തിനും പതിനായിരത്തിനുമൊക്കെ വിൽക്കുന്ന ഒരുപാട് പേരെ എനിക്ക് നേരിട്ട് അറിയാൻ പറ്റും നമ്മുടെ ഇവിടെയൊക്കെ ഇപ്പം എല്ലാവരും അത് ഒരു വരുമാന മാർഗമാക്കി കൊണ്ടിരിക്കുകയാണ്